എൻ്റെ നാട്ടിൽ എന്ന് പറയുമ്പം മെയിൻ ആയിട്ട് പ്രാവുകളെ കാണാറുണ്ട് അതുപോലെ തത്ത മൈന പിന്നെ ചെറിയ ചെറിയ ചെറിയ അടക്ക കുരുവികൾ കാര്യങ്ങൾ അങ്ങനെ കാക്കകൾ പിന്നെ കുയിൽ കാര്യങ്ങളൊക്കെ കാണാറുണ്ട് മെയിൻ ആയിട്ട് തത്തകളെ കാണുമ്പോഴാണ് കുറച്ചു അട്രാക്ടീവ് ആണ് അതുങ്ങളുടെ ഭംഗിയും കാര്യങ്ങളും അതിൻ്റെ കളറും കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ തന്നെ ഒരു ഭംഗി ഉള്ളതാണ് അത് ഇങ്ങനെ പറന്നു നടക്കുന്നതൊക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗി കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് പിന്നെ പക്ഷികളിങ്ങനെ ഓരോ കാലാവസ്ഥ അനുസരിച്ച് ഇങ്ങനെ അതുങ്ങളിങ്ങനെ മാറി മാറി സഞ്ചരിച്ചുകൊണ്ട് ഇരിക്കുകയും അങ്ങനെ വെറൈറ്റി ഇനങ്ങൾ വരികയും ഒക്കെ ചെയ്യാറുണ്ട്